അതെങ്ങനെയാണെന്ന് വെച്ചാൽ വ്യാവസായിക ആവശ്യങ്ങളെക്കുറിച്ച് അറിവ് പുതുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള വ്യവസായ വ്യവസായം ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അറിയുന്നവരെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചോ ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല അറിവുള്ളവരോടൊക്കെ ചോദിച്ചാണ് നമ്മൾ മെയിനായിട്ട് ഇതാക്കുന്നത് പിന്നെ അപ്പം അതിനനുസരിച്ചുള്ള മാർക്കറ്റിങ്ങും നമ്മൾ ഫോണിലോ ഡിജിറ്റൽ മാർക്കറ്റിങ് അതിൻ്റെയൊക്കെ മാർക്കറ്റിങ് എങ്ങനെ ഉണ്ട് അതിൽ എത്ര ഇതിപ്പോൾ നമ്മൾ ട്രേഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽതന്നെ ഇന്ന് ഓരോ ദിവസവും ഓരോ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെയാണ് എല്ലാ വ്യവസായങ്ങളിലും ആ സമയത്ത് ആവശ്യമുള്ള ആ സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഓരോന്നിൻ്റെ വില മാറിക്കൊണ്ടിരിക്കും അതൊക്കെ അന്വേഷിച്ചു വേണം നമ്മൾ പുതിയ പുതിയ വ്യവസായങ്ങളിലേക്ക് പോകാൻ പിന്നെ പല പല വിധത്തിൽ നമുക്കറിയാം നമുക്ക് ഞാൻ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യല് എൻ്റെ പരിസരപ്രദേശങ്ങളിൽ പല പല ബിസിനസ്സ് ചെയ്യുന്നവരുണ്ട് അവരോട് ആണ് ഞാനെൻ്റെ വിവരങ്ങൾ തിരക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ അവർക്കറിയില്ലെങ്കിൽ അവർ നമ്മൾക്ക് അറിയുന്നവരെ കോൺടാക്റ്റ് ചെയ്യും ചെയ്തും അങ്ങനെ അതാണ് നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരെ സ്നേഹം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു